ഒരു വർഷത്തിൽ പല കാലാവസ്ഥകളൊക്കെ ഇവിടെ ഞങ്ങളെ നാട്ടിൽ ഉണ്ടാവും അപ്പോൾ വേനൽകാലമൊക്കെ ആവുമ്പോഴുള്ള ഇതാണ് തണ്ണിമത്തൻ വത്തക്ക എന്ന് പറയും അതിൻ്റെ വിളവെടുപ്പ് ഭയങ്കരമായിട്ട് ഉണ്ടാവും പിന്നെ ഈ എന്താണ് പിന്നെ ഈ മഞ്ഞുകാലത്തൊക്കെയാണ് തോന്നുന്നു ശരിക്ക് അത് തന്നെയാണോ എന്ന് കറക്റ്റ് എനിക്ക് അറിയുന്നില്ല പയർ കൃഷി ചെയ്യും പിന്നെ മഴക്കാലമോ ഒരു ജൂൺ ജൂലൈ ആഗസ്റ്റ് ആ സെപ്റ്റംബർ ആ മാസങ്ങളിലൊക്കെ പച്ചക്കറികൾ ഓണത്തിനോട് അനുബന്ധിച്ചു പച്ചക്കറികളുടെ വിളവെടുപ്പും എല്ലാം ഉണ്ടാവും പിന്നെ ഓരോ ഓരോ കാലാവസ്ഥയിൽ ഓരോന്നായിരിക്കും ചെയ്യുക വേനൽക്കാലത്ത് അധികവും ഇതേ മാതിരി തണ്ണിമത്തൻ അങ്ങനത്തെ പച്ചക്കറികൾ വെള്ളം കുറവ് ആവിശ്യയമുള്ളതൊക്കെയാണ് വേനൽ കാലത്ത് ചെയ്യുക വെള്ളം ആവശ്യം കൂടുതലുള്ളതാണ് മഴക്കാലത്തു ചെയ്യുക ഇപ്പം നെൽകൃഷി ഒക്കെ അങ്ങനെയായി ബന്ധപ്പെട്ട് പിന്നെ ഈ തണുപ്പ് അതായത് ഈ ഡിസംബറൊക്കെ ഒരാ ആ ഒരു മാസങ്ങളിൽ ആ കാലാവസ്ഥയ്ക്ക് അനുയോജ്യയായ പച്ചക്കറികൾ വെണ്ടയ്ക്ക അതിലുള്ള വെണ്ടയ്ക്ക അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യും